ആ അപ്പച്ചായനല്ലേ ആ ഞാനേ ഇവിടുന്ന് കുന്നംകരയിൽ നിന്നായിരുന്നു വിളിക്കുന്നത് ആ ഞാൻ വിളിച്ചത് നമുക്ക് ഞങ്ങളുടെ വീടിൻ്റെ പണി ഏകദേശം തീരാറായിരുന്നു അപ്പോൾ അതിൻ്റെ ആ ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഒക്കെ ചെയ്യണമായിരുന്നു ഞങ്ങൾക്ക് രണ്ട് മുറി ഉള്ളതാണ് രണ്ട് മുറി ഉള്ളത് രണ്ട് മുറി ഒരു അടുക്കള നമുക്കൊരു ഹാൾ ഉണ്ട് ബാത്റൂം ഉണ്ട് അപ്പം ഇലക്ട്രിഫിക്കേഷൻ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല ഒന്ന് വന്ന് കാണുമായിരുന്നെങ്കിൽ എനിക്കിപ്പം പത്തോ പതിനൊന്നോ വേണ്ടി വരുമായിരിക്കും അപ്പോൾ നമുക്ക് എന്നാ ഒക്കെ സാധനങ്ങളായിരിക്കും വേണ്ടത്

സാധനത്തി സാ സാധനത്തിന് മാത്രമല്ലേ

ഒരാഴ്ചത്തെ വർക്ക് എടുക്കുമോ ആ ഹാ ഹാ അപ്പോൾ നിങ്ങൾ എത്ര പേർ കാണുമായിരിക്കും തന്നെ ആയിരിക്കുമോ വരുന്നത് അതോ വേറെ ആരെങ്കിലും കാണുമോ രണ്ട് മൂന്ന് പേർ അല്ലേ പിന്നെ ഇല്ലേ സാധനം നിങ്ങൾ പോയി വാങ്ങുമോ അതോ ഞാൻ മേടിക്കണോ എങ്ങനെയാണെന്നുള്ളത് ആ അപ്പോൾ ലിസ്റ്റ് ഒക്കെ തരുവാണെങ്കിൽ ഒന്നുകിൽ ഒന്നുകിൽ ലിസ്റ്റ് തരുവാണെങ്കിൽ ഞാൻ വാങ്ങാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചങ്ങനാശ്ശേരിയിലുള്ള ഇലക്ട്രിക് കടയിൽ നിന്ന് നിങ്ങളുടെ ഒരു സൗകര്യം ഉള്ള ഒരു ദിവസം പറയുവാണെങ്കിൽ ഞാൻ പൈസ തരാം അതിന് മുന്നെ ആയിട്ട് ഇതൊന്ന് വന്ന് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുമായിരിക്കുമല്ലോ നാളെ കഴിഞ്ഞല്ലേ

മൂന്ന് ദിവസം അല്ലേ ആ നമുക്ക് ഇത്തിരി ആൾ കൂടിയാലും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇത് ഇത്തിരി പെട്ടെന്ന് തീർക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ഓക്കെ ഓക്കെ അപ്പം ആ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാൽ സാധനങ്ങൾ നിങ്ങൾ തന്നെ വാങ്ങിച്ചോ അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ലേ എന്താണ് കറക്റ്റ് നോക്കി വാങ്ങേണ്ടതൊക്കെ സ്വിച്ച് ബോർഡ് പൈപ്പ് അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ തന്നെ എന്നാ വന്ന് വാങ്ങിച്ചോ ഒക്കെ വന്ന് നാളെ കഴിഞ്ഞ് വരുമല്ലോ കണ്ടിട്ട് നിങ്ങൾ തന്നെ സാധനങ്ങൾ വാങ്ങിച്ചോ അപ്പോൾ ആ നാളെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഏകദേശം എമൗണ്ട് ഞാൻ പറയാം എന്ന് കട നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട് ചങ്ങനാശ്ശേരിയിൽ അപ്പോൾ അവിടെത്തന്നെ പോവുകയാണെങ്കിൽ വലിയ കാര്യം ആ ആ ശരി എന്നാൽ ഓക്കെ